പൊതുവേ നമ്മള് ഗ്രാമപ്രദേശങ്ങള് പറയണം വെച്ചാൽ അവിടെ ഒരുപാട് ഉൾപ്രദേശങ്ങളായതിനാൽ അധികവും ആൾക്കാരുടെ സേവനം അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ ലഭിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കു ആണെന്നു വെച്ചാൽ അവർക്കെന്തെങ്കിലും ആരുടെയും സഹായവും ഒക്കെ ആവശ്യമാണ് വെച്ചാൽ അതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായി വരും പൊതുവേ ഞാനൊരു ഗ്രാമപ്രദേശത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും പോവണമെങ്കിൽ അതിനനുസരിച്ച് ദൂരവും കാര്യങ്ങളും ഉണ്ട് എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് വേറൊരു സ്ഥലത്തേക്കെത്താൻ അങ്ങനെ ഗ്രാമപ്രദേശങ്ങളില് ഒരുപാട് നമുക്ക് സേവനങ്ങൾ ലഭിക്കാൻ ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ നമ്മുടെ അവിടെ അടുത്തൊന്നും അല്ല എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കവിടെ പോയി പറയാനാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് സമയമെടുക്കും